വയനാട്ടിലെ യുവാക്കൾക്ക് ഒന്നാമത് ഇപ്പം തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് മുന്നിട്ട് നിൽക്കുന്നത് കാരണം ഇവിടെയുള്ള ആൾക്കാർ എന്താണ് പറയുക ഇപ്പം എസ് ടികൾക്കാണ് കുടുതലായിട്ടും എന്താണ് പറയുക ജോലി പി എസ് സി ജോലിയൊക്കെ വിളിച്ച് അവർക്ക് നല്ലൊരു പോലീസ് അങ്ങനെയെന്തെങ്കിലും ഒക്കെ കിട്ടുന്നത് ഇപ്പം സാധാരണ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു ഒരു വിട്ടുവീഴ്ച്ചയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം എല്ലാം എസ് ടിക്കാർക്കുള്ളതാണ് അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു ജോലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല ഇതാണ് യുവജനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയും പ്രശ്നങ്ങളും എല്ലാം ഇതുതന്നെയാണ് അപ്പം നമ്മുടെ ഒരു അഭാവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് യുവാക്കൾക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം പേടിയാണ് എല്ലാത്തിനും പേടിയാണ് പിന്നെ യുവജനങ്ങൾക്ക് വികസനം വരണം വികസനങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയുള്ളൊരു കാഴ്ച്ചപ്പാടിലാണ് യുവജനങ്ങൾ നിൽക്കുന്നത് പക്ഷേ നമുക്ക് ജോലി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ വികസനത്തിനും എല്ലാ കാര്യത്തിനും നമ്മൾ ഒന്ന് തയ്യാറെടുക്കുള്ളൂ പിന്നെ സംരംഭം ഒക്കെ തുടങ്ങ ഇപ്പം തുടങ്ങണമെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് നമുക്ക് അപ്പോൾ എന്തെങ്കിലും ലോണോ ലോൺ സൗകര്യമോ അങ്ങനെ എന്തെങ്കിലും റെഡി ആക്കി തരുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു